ചിത്രരചനയിൽ എന്നെ സംബന്ധിച്ചടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം അല്ലങ്കിൽ ഒരു വശം എന്നത് സമയം തന്നെയാണ് ഇപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരക്കാനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പം നമുക്ക് നമ്മള് ചിത്രരചന എന്ന് ഉള്ള ഒരു കാര്യത്തിൽ മാത്രം അല്ലേ ഏർപ്പെടേണ്ടത് ഒരു ദിവസം നമുക്ക് പല കാര്യങ്ങളും ഏർപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ ചിത്രം വരയ്ക്കുന്നതിന് ഒരു സമയം കണ്ടെത്തേണ്ടത് ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ചിത്രം വരയ്ക്കാനായിട്ട് പെൻസില് റബ്ബറ് കട്ടറ് അതുപോലെ ഇത് ഓരോ ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മള് ചിത്രം വരക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് സൂക്ഷിച്ചോ അല്ലെങ്കിൽ പെന്ന് ഒക്കെ ഉപയോഗിച്ച് നമ്മള് വരയ്ക്കുവാണെങ്കില് ഒന്ന് ഒരു തെറ്റിയാൽ അല്ലങ്കിൽ എടുപിടിയിൽ വരയ്കുവാണെങ്കിൽ നമുക്ക് അത് ശെരിയായി വരില്ല ഇപ്പം നമുക്ക് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആയിട്ട് വരയ്ക്കാൻ തോന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം ഒരു മുന്നിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വെച്ച നമ്മളത് ചിത്രത്തിലേക്ക് കൊണ്ട് വരുമ്പം നമുക്ക് ആ ചിത്രം വരയ്ക്കാത്ത രീതിയില് ഇപ്പോൾ അത് ശെരിക്കും ഒരു ആപ്പിൾ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയില് ഉള്ള ചിത്രങ്ങൾ ഉണ്ടാകും അതൊക്കെ വരയ്ക്കാൻ ഭയ നല്ല ബുദ്ധിമുട്ട് ആണ് ഇപ്പം നമ്മള് ചില ചിലതൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് ഇപ്പോൾ ഒരു ഒരു സാധനം മുന്നിൽ കണ്ടാല് അത് ചിത്രം ആണോ അല്ലങ്കിൽ അത് ശെരിക്കും ഉള്ള ഒരു വസ്തുവാണോ എന്നുള്ള ഒരു സംശയം നമ്മളിലേക്ക് വരുമല്ലോ ആ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം അപ്പം സമയവിയും വേണം അതുകൊണ്ട് സമയം എടുത്ത് വരയ്ക്കുമ്പോൾ ചിത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭംഗിയാകും ഇപ്പോൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വശം എന്ന് പറയുന്നത് സമയം തന്നെയാണ്